ആരോഗ്യപരിപാലനത്തെ കുറിച്ച് പറയാണോന്ന് വച്ചാൽ ഒരുപാട് സർക്കാർ പദ്ധതികൾ ഇണ്ട് ആർദ്രം അതുപോലെ സുകൃതം ആയുർദളം അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഉണ്ട് ഇപ്പോൾ സമൂഹത്തിലെ ഇപ്പം കിടപ്പ് രോഗികള് അതുപോലെതന്നെ എയ്ഡ്സ് രോഗികൾ കുഷ്ഠരോഗികൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പല രീതിയിലുള്ള പല അവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടി ഒരുപാട് എത്രയല്ല ഒരുപാട് കുറെ പദ്ധതികളും മറ്റുകാര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവയെക്കുറിച്ച് നമ്മൾ അറിയാന്നുവച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ പിന്നെ ചുറ്റുമുള്ള ആൾക്കാര് നമ്മൾ ഓരോരുത്തരും ഓരോന്നിനും അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന സമയത്ത് അങ്ങനെ അറിയാൻ പറ്റും അപേക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മിക്കവാറും എല്ലാം നമ്മൾ ഓൺലൈനിൽ ആയതുകൊണ്ടാണ് അക്ഷയ പോയിട്ട് വേണം സർട്ടിഫിക്കറ്റ് മറ്റും കാര്യങ്ങള് ഉപയോഗിച്ച് നമ്മൾ അക്ഷയയിൽ പോയി അപേക്ഷിക്കുകയാണ് അങ്ങനെയാണ് പിന്നെ പിന്നെ അക്ഷയേന്നും മറ്റും പഞ്ചായത്തിലും വില്ലേജിലുമൊക്കെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്